സ്വിഗ്ഗി വഴി ഞങ്ങൾ നാല് ചിക്കൻ ബിരിയാണിക്ക് ഓർഡറ് കൊടുത്തിരുന്നു പക്ഷേ ഞങ്ങളത് അത് എന്താ പറയുക പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴി അടയ്ക്കുകയും ചെയ്തിരുന്നു പക്ഷേ അത് കിട്ടാനായിട്ടതിൻ്റെ ഡെലിവറിക്ക് താമസം നേരിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളത് ഓർഡറ് ക്യാൻസല് ചെയ്തിരുന്നു പക്ഷേ പിന്നീടതാ ഫണ്ട് റിഫ അതായത് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറിയ ഒരു റിപ്ലേയും ഇതുവരെ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല അപ്പം ഞങ്ങള് രണ്ടു മൂന്നു പ്രാവശ്യം ഇങ്ങനെ ഇതെന്താന്ന് ഇതൊക്കെ ചോദിച്ചിട്ട് പക്ഷേ ഇതുവരേയും അതിനോര് റിപ്ലേ കിട്ടുകയോ അല്ലെങ്കിൽ ആ ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ടു അപ്പം അതുമിങ്ങനെ ഓട്ടോമാറ്റിക്കലി അത് ഇതായിട്ട് വരുമെന്നാണ് പറയുന്നത് കാരണം ആ അക്കൗണ്ടിലേക്ക് റിഫണ്ടായിക്കോളും ആയിക്കോളുമെന്നാണ് പക്ഷേ ഇതുവരെ അത് റിഫണ്ടായിട്ടില്ല അതിനൊക്കെ എന്തെലും കാരണങ്ങൾ ഉണ്ടോ എന്ന് ഇപ്പം ഞങ്ങൾ ഇതെവിടെ ആയിട്ടാണ് ബന്ധപ്പെടണ്ടേ ഇതെന്താ ഇത് ഇങ്ങനെ ഒക്കെ നമ്മളൊരു നമ്മളൊരു വിശ്വാസ്യതയല്ലേ നമുക്കിത് ചോദ്യം ചെയ്യപ്പടുന്നത് കാരണം ഇതുപോലൊരു നമ്മളൊരു സിറ്റുവേഷനിതായിരുന്നു കാരണം അത് വൈകി കഴിഞ്ഞപ്പോൾ ഡെലിവറി ചെയ്യാൻ വൈകുന്നറിഞ്ഞപ്പളാണ് ഞങ്ങളത് ക്യാൻസല് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഒരു കസ്റ്റമറെ സാറ്റിസ്ഫയ് ചെയ്യിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് അപ്പം അത് റിഫണ്ടെന്ന് പറഞ്ഞാൽ ഇത് വരെ റിഫണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ സ്വിഗ്ഗിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നതിവിടെ ഭയങ്കര ഒരു മോശമുള്ളൊരു ഇതായിരുന്നു അത് കാരണമത് ഇതുവരെ റിഫണ്ടായിട്ടില്ല അപ്പോൾ അതിനുള്ള കരണങ്ങളെന്താണെന്നൊന്ന് ഓട്ടോമാറ്റിക്കലി അത് നമ്മളത് ക്യാൻസല് ചെയ്യുമ്പോൾ ഫണ്ട് തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുന്നതാണ് അങ്ങനെയാണ് സാധാരണ സംഭവിക്കുന്നത് പക്ഷേ അവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇതുവരെ അത് റീഫണ്ട് ആകാത്തത് കൊണ്ട് ഇനി നമ്മള് നമ്മളൊരു പക്ഷേ എന്താ പറയുക ഓർഡറ് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് നേരിടണം അല്ലെങ്കിൽ നമ്മളൊന്നും കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്യണോ ഇതൊക്കെ ഇത്രനാളും വിശ്വാസ്യതയുള്ള ഒരു സൈറ്റായിരുന്നു അത് പക്ഷേ ഇപ്പം അതിൻ്റെ വിശ്വാസ്യത ഇങ്ങനെ പോകുന്നു ആ പോയി ഇത് വരെ ആ ഫണ്ടൊരു നാല് ചിക്കൻ ബിരിയാണിയുടെ കാശെന്ന് പറഞ്ഞാൽ നിസാരമല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഞങ്ങളെവിടെയാണ് ബന്ധപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു